ഓ നമ്മുടെ പരീക്ഷ ഹാളിൻ്റെ ഉദ്ഘാടനത്തിന് ലഡു ഒരു രണ്ടായിരം എണ്ണമെങ്കിലും വേണ്ടിവരുമല്ലോ അതിപ്പോള് എവിടെ ഓർഡറ്യ്താല് കിട്ടും നമുക്കൊന്ന് സെർച്ച്യ്ത് നോക്കാം ഇതില് ബെസ്റ്റ് ബേക്കറിയില് നോക്കിയിട്ടവിടെ അറുനൂറെണ്ണമേ അവൈലബിളാവുന്നുള്ളു പിന്നെ ആൻസില് നോക്കീട്ടാണെങ്കിലും അവിടെ ഒരായിരം എണ്ണം കിട്ടുന്നുണ്ട് അന്നേരം ആയിരത്തറുന്നൂറേ ആയുള്ളു അങ്ങനെയാണെങ്കില് നമുക്കൊരു രണ്ട് മൂന്ന് കടകളിലായിട്ട് ഓർഡറെയ്യുകയാണെങ്കില് അതായിരിക്കുമല്ലോ നല്ലത് അങ്ങനെയാണേ ഈ ബെസ്റ്റിലും ആൻസിലും പറയാം കൂടാതെ നമ്മുടെ ആദംസിലൂടെ പറയാണെങ്കില് ചിലപ്പോള് നമുക്ക് തികയുമായിരിക്കുമല്ലോ അതിനുള്ള രീതിയിലേക്ക് നോക്കുവാണങ്കില് ഒരഞ്ഞൂറ് എണ്ണം അവിടെ ആദംസില് പറയാം ഒരഞ്ഞൂറെണ്ണം ബെസ്റ്റില് പറയാം ഒരായിരെണ്ണം ആൻസിലും പറയാം അങ്ങനെയൊക്കേ ആകുമ്പോഴത്തേക്കും രണ്ടായിരാവുമല്ലോ രണ്ടായിരത്തിൻ്റെ ആവശ്യമേ വരുവുള്ളല്ലോ രണ്ടായിരം മാക്സിമം രണ്ടായിരം പേരല്ലേ വരുവുള്ളു അതിനുള്ള ലഡു അതും രണ്ടായിരം എണ്ണം മതിയായിരിക്കും അല്ലെങ്കില് പത്തോ ഇരുന്നൂറോ എണ്ണം കൂടെ വേണമെങ്കിലും നമുക്ക് നോക്കാം ഇരുന്നൂറ് എണ്ണം വേണമെങ്കിലും ആൻസില് പറഞ്ഞാല് കിട്ടുമെന്ന് തോന്നുന്നു അതനുസരിച്ച് ഓർഡറെയ്യാം